പ്രധാനപ്പെട്ട മതകേന്ദ്രങ്ങൾ ഒന്ന് വേളാങ്കണ്ണി ശബരിമല പഞ്ചാബിലെ സുവർണ ക്ഷേത്രം വേളാങ്കണ്ണി വേളാങ്കണ്ണിയെ കുറിച്ച് പറയുകയാണെങ്കില് ഒത്തിരി ക്രിസ്ത്യ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും വേളാങ്കണ്ണിയിലെ എന്നും തീർത്ഥാടനം നടത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ പോയി നേർച്ച നേർന്ന് ഒത്തിരി കാര്യങ്ങള് സാധിക്കാനായിട്ടാൾക്കാര് വിവാഹം നടക്കാനും കുഞ്ഞുങ്ങളുണ്ടാവാനും പിന്നെ ബിസിനസ്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ വേളാങ്കണ്ണി മാതാവിനോട് ആൾക്കാർക്കൊരു പ്രത്യേക ഭക്തിയുണ്ട് ആ ഭക്തി അവര് നേർച്ച നേർന്ന് അവിടെ പോയി തീർത്ഥാടനം നടത്തി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന ഒരു പതിവാണുള്ളത് അപ്പോള് അത് എല്ലാ എല്ലാ എപ്പോള് എപ്പോള് വേളാങ്കണ്ണിയില് ചെന്നാലും അവിടെ വളരെയേറെ ജനത്തിരക്കുള്ള ഒരു സ്ഥലമാണ് മാതാവ് പ്രത്യക്ഷപ്പെട് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആൾക്കാർക്കു പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും വേളാങ്കണ്ണി മാതാവിന് പലപ്പോഴും പലർക്കും പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടുതന്നെ മാതാവിനോടൊരു പ്രത്യേക ഭക്തി മാതാവിനോടെന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും അല്ലെങ്കിൽ മാതാവ് നന്മയിൽ വളർത്തുമെന്നുള്ളൊരു വിശ്വാസത്താല് ആൾക്കാർക്ക് അവിടെ പോകാനും പ്രാർത്ഥിക്കാനും കാര്യങ്ങള് സാധിച്ചെടുക്കാനുമൊക്കെയുള്ള ഒരു സ്ഥലമായിട്ടാണ് വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തെ കാണുന്നത് അതുപോലെ ശബരി മല ശബരിമലയിലെ ആൾക്കാര് പത്തനംതിട്ടയിലെ എരുമേലിയെന്ന എരുമേലി എന്ന സ്ഥലത്താണ് ഈ ശബരിമല അവിടെ ജനങ്ങള് ആൾക്കാര് ഈ തീർത്ഥാടനം നടത്തുന്ന പ്രത്യേകിച്ച് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളില് ഒക്കെ നടന്നും വണ്ടിയിലുമൊക്കെ തീർത്ഥാടനം നടത്തി ഒത്തിരി ഭക്തജനങ്ങള് അവിടെ പോയി പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു ആ ഒരു നാളുകളിലവര് ശരണം വിളികളൊക്കെ നടത്തി ഉപവാസം ചെയ്ത് പ്രാർത്ഥിച്ച് നൊയമ്പെടുത്തുമൊക്കെയാണ് ആളുകള് അവിടേക്ക് കടന്നുപോകുന്നത് അതുപോലെ ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിലെ പഞ്ചാബിലാണ് സുവർണ ടെമ്പിൾ സുവർണ ക്ഷേത്രം എന്നാണ് ആ പഞ്ചാബിലെ ക്ഷേത്രമറിയപ്പെടുന്നത് അവിടെ ആൾക്കാര് നിരന്തരം പ്രാർത്ഥിക്കുകയും ഗ്രന്ഥം അവരുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരുപാടാളുകള് പല ദേശത്തുനിന്നും ഒരുപാടാളുകള് അവിടെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയായിട്ട് വന്നുപോകാറുണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് അന്നദാനം